ആ തുന്നലിനായി നമ്മുടെ കൈയില് ഒരു സാധാ മെഷീനും അതിനാവശ്യമുള്ള സൂചി നൂല് ബോബിൻ കേസ് പിന്ന അതൊരു മോട്ടറിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത് സാധാരണ ചവിട്ടുന്നതിന് പകരമായിട്ട് മോട്ടോറിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ സാദാ ഒരു മെഷീനാണ് ഒത്തിരി വലിയ രീതിയില് നമ്മള് തയ്യലിലേക്ക് ഇറങ്ങത്തില്ലേലും അത്യാവശ്യം തുണികൾ അടിക്കാനും അത്യാവശ്യം സാധനങ്ങളൊക്കെ ഫ്രോക്കും അങ്ങനെയൊക്കെ തൈക്കാനും നമ്മളതുപയോഗിക്കുന്നുണ്ട് പിന്നെ ഇത് കൂടുതൽ മെച്ചപ്പെടാൻ പല ഇപ്പോള് വിപണിയിൽ ഇഷ്ടം പോലെ ആധുനിക രീതിയിലുള്ള സ്റ്റിച്ചിങ് മെഷീനുകളൊക്കെയുണ്ട് അതു കൂടുതൽ മേടിക്കാൻ എംബ്രോയ്ഡറി ചെയ്യാൻ പറ്റുന്ന മെഷീനുകൾ വാങ്ങിക്കുക അങ്ങനെയൊക്കെ ആണെങ്കില് ഒന്നൂടെ തുന്നല് കാര്യങ്ങള് മെച്ചപ്പെടുത്താനൊക്കെ സഹായിക്കുന്നു എന്ന് മനസ്സിലാവുന്നുണ്ട്